യൂടൃൂബിലും ടിവിയിലും ഒക്കെ ഒരുപാട് പാചകവിധി ചാനലുകള് നമ്മള് ഇപ്പോള് കാണുന്നുണ്ട് ടിവിയിലും ഒരുപാടുണ്ട് അതെല്ലാ എനിക്ക് ഏഷ്യാനെറ്റ് ചാനലിലെ ഉച്ച ഒരു പന്ത്രണ്ടു മണിക്ക് കാണിക്കുന്ന ടാ ടേസ്റ്റ് ടൈം എന്ന പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതില് ഓരോ സെലിബ്രേറ്റി വന്നു ഓരോ ദിവസം ഓരോ ഫുഡ് ഉണ്ടാക്കി കാണിക്കാറുണ്ട് അതില് ഓരോ ഐറ്റം ഞാന് ഇടയ്കക്കൊക്കെ പരീക്ഷിക്കാറുണ്ട് വീട്ടില് ഇപ്പം നമ്മക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതിനു എന്തെങ്കിലും ഒരു ഒരു ഏന്തെങ്കിലും ഒരു അറിവ് ഇല്ലായെങ്കില് ഏതൊരു ഫുഡ് ആണെങ്കിലും ഇപ്പോ യൂടൃൂബില് അടിച്ചു നോക്കിയാൽ നമുക്ക് ഈസിയായി വളരെ എളുപ്പത്തില് ഉണ്ടാക്കാവുന്നതാണ് അതുത്തന്നെ യൂടൃൂബില് ഒരുപാട് ചാനലുണ്ട് ഞാന് കേക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പം കേക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് ചാനലുകള് ഉണ്ട് പേരെടുത്ത് പറയാന് പറ്റില്ല അത്രക്കും ചാനലുകളാണ് ഇപ്പം ഏതെങ്കിലും ഒരു ചാനലില് നിന്നു എടുത്തിട്ടാണ് ഞാന് അതുപോലത്തെ ഓരോ സാധനങ്ങള് ഒക്കെ ഉണ്ടാകാറ് ഷമീസ് കിച്ചന് എന്ന് പറയുന്ന ഒരു ചാനല് നല്ല എളുപ്പത്തില് എത്രയോ മില്യണ് അടിച്ചിട്ടുള്ള ഒരു ചാനല് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനല് ആണ് അത് അതില് തന്നെ നല്ല സിമ്പിളായിട്ട് ആ ഒരു പിന്നെ ലേഡി പറഞ്ഞുതരുകയും അത് നമുക്ക് ഉണ്ടാക്കാൻ തോന്നിക്കാറുണ്ട് അതും സിമ്പിളായിട്ട് ഒരു ചിലവും അധികം ചിലവൊന്നും കൂടാതെ എല്ലാവര്ക്കും ഉണ്ടാക്കാന് പറ്റിയ രീതിയിലാണ് അവര് ഓരോ ഡിഷും ഉണ്ടാക്കി കാണിക്കാറ്